എൻ്റെ ജോലീന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരൂ കമ്പനിയില് വർക്ക് ചെയ്യുവാണ് ഒരൂ ക്രെഷർ ആണ് ഒരു കോറീലാണ് വർക്ക് ചെയ്യണത് അതില് പിന്നെ സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കുറച്ച് ഓഫീസ് ആണ് ഓഫീസ് കം സൂപ്പർവൈസറാണ് അങ്ങനെ വർക്കുചെയ്യുവാണ് ഈ അത്യാവശ്യം നമ്മുടെ അണ്ടറില് കുറച്ച് പത്ത് ഇരുപതു ലേബേഴ്സ് ഉണ്ട് അവരെ ഒക്കെ നമ്മള് ഷിഫ്റ്റിന് അനുസരിച്ച് കയറ്റി വിടുക അത് പോലെ മെയിൻറ്റെയിൻസ് ഇപ്പോൾ മിഷ്യൻസിൻറ്റെയും വണ്ടികൾടെയൊക്കെ ഉണ്ട് അതൊക്കെ മെയിൻറ്റയിൻസ് കാര്യങ്ങളൊക്കെ നോക്കുക അതൊക്കെ അവരെ വെച്ച് ഓപ്പറേറ്റർമാരെയൊക്കെ വെച്ച് ചെയ്യിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങള് അതേപോലെ എന്തെങ്കിലുമക്കെ അത്യാവശ്യ അതൊക്കെ ചെയ്ത് വിടുക അപ്പോൾ കമ്പനിയുടെ ആവശ്യ സാധനങ്ങളക്കെ പർച്ചേയ്സ് ചെയ്യ്ക അങ്ങനെ ഓൾ ഇൻ ഓൾ ആയിട്ട് ഒരു ടീമിനെ നയിക്കുന്നൊരു വർക്കാണ് ചെയ്തോണ്ടിരിയ്ക്കുന്നത് അപ്പോൾ അത് തിരഞ്ഞെടുക്കാൻ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അനേ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ സമയത്ത് പഠിത്തമൊക്കെ കഴിഞ്ഞപ്പം പിന്നേ ഒരു ഓഫറ് വന്നു അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് അവിടെ പോയി ഇൻറ്റർവ്യൂന് പോയി അങ്ങനെ വിളിച്ചു അപ്പോൾ അങ്ങനെ അവടങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയ്ക്കൊണ്ടിരിക്കയാണ് ഇപ്പോൾ ഏകദേശം ഗുഡ് സാലറി ഉണ്ട് പിഎഫ്ഇ ഇഎസ്സ്ഐ അങ്ങനുള്ള കാര്യങ്ങളക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പോകുന്നു